നമസ്കാരം വരൂ മേഡം ആ വരൂ വരൂ ആ ഓക്കെ ആ ആ ഓക്കെ രണ്ട് ആൾ അല്ലേ ഏഹ് ഒരാൾ എൽ കെ ജി ഒരാൾ രണ്ടാം ക്ലാസ്സും ഓക്കെ ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളെ ഇതിനു മുമ്പ് എവിടെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്

ആ ഓക്കെ ഓക്കെ ശരി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവിടെ പോയിട്ട് ഫോം അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതി കൊടുക്കണം അവർ അച്ഛൻ്റെ പേര് കാര്യങ്ങൾ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊടുക്കണം കോപ്പി മതി ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊടുത്താലും മതി പിന്നെ എന്താണ് ആ രണ്ട് ഫോട്ടോ കൊടുക്കണം രണ്ട് ആളുടെയും ആ മതി പിന്നെ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് അപ്പ് ചെയ്ത് കൊടുത്താൽ മതി അച്ഛൻ്റെ പേര് അഡ്രസ്സ് കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ പേര് ആ അച്ഛൻ്റെ അമ്മയുടെ പേര് അഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ അവർ എവിടെ നിന്ന് ആണ് നിങ്ങൾക്ക് സ്കൂൾ ബസ് വേണോ എങ്ങനെ ആണ് അതിൻ്റെ അത് നമ്മൾ കിലോ മീറ്റർ അനുസരിച്ചാണ് സ്കൂൾ ബസ്സിൻ്റെ ഫീസ് കണക്കാക്കുന്നത് ഇപ്പോൾ പത്ത് കിലോ മീറ്റ് പത്ത് കിലോ മീറ്ററിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ മുന്നൂറ് രൂപ ആണ് നമുക്ക് ഫീസ് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ അതിനനുസരിച്ച് മാറ്റം വരും അഡ്മിഷൻ അപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ആണെന്ന് പറയുമ്പോൾ മാസം എണ്ണൂറ്റി നാൽപ്പത് ഉർപ്യയാണ് ഫീസ് വരുന്നത് അതില് അവരിക്ക് മന്ത്ലി ആയിട്ട് പേ ചെയ്യണമെങ്കിൽ മന്ത്ലി ആയിട്ട് പേ ചെയ്യാം ക്വാർട്ടർലി പേ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് മന്ത്ലി ആയിട്ട് പേ ചെയ്യണമെന്ന് പറയുമ്പോൾ അഞ്ചാം തിയതിക്കുള്ളിൽ പേ ചെയ്യണം ആ എപ്പോൾ ചെറിയ ആളുടെ ഫീസ് മാത്രം ഏകദേശം ഒരു ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ വരും ആ അതിലിപ്പോൾ അല്ല ഒൻപതിനായിരത്തി അറുന്നൂറ് അല്ല രണ്ട് മാസം കമ്മി ആക്കുമ്പോൾ എൺപത് എണ്ണൂറ്റി നാൽപത് ഒരു എട്ടായിരം ഉർപ്യ അടച്ചാൽ മതിയാകും

അവർക്ക് മന്ത്ലി വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ആണ് വരുന്നത് അത് നമ്മൾ മൊത്തം ആയിട്ട് അടക്കുമ്പോൾ പത്തേ ഇരുന്നൂറ് അടച്ചാൽ മതി ഇല്ല ബുക്ക് നമ്മൾ ഫ്രീ ആണ് പക്ഷെ യൂണിഫോം നിങ്ങൾ പേ ചെയ്യേണ്ടി വരും ആ യൂണിഫോം രണ്ട് സെറ്റ് അതെ നിങ്ങളിപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ യൂണി രണ്ട് ആളുടെയും അളവ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് ആൾ അവർ വന്നിട്ടുണ്ടോ കൂടെ വന്നിട്ടുണ്ടോ ആ അങ്ങനെ ആണെങ്കിൽ നാളെയോ മറ്റന്നാളോ വന്നിട്ട് അവിടെ അവർ അളവും കാര്യങ്ങളും കൊടുത്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ തന്നെ തയ്ച്ചു തരും ഒരു അളവും കാര്യങ്ങളും ഒന്ന് അവർക്ക് കൊടുത്താൽ മതി അവർ എടുക്കും അളവും കാര്യങ്ങൾ ഒക്കെ അപ്പോൾ അതിനനുസരിച്ച് അവർ തയ്ച്ചു നിങ്ങൾക്ക് തരും ഇപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ എന്തായാലും ഒരാഴ്ച്ച ഉണ്ടല്ലോ ആ അവർക്ക് മറ്റേ ബേഗും അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും നമ്മൾ തരില്ല ബേഗ് സ്കൂൾ ബോട്ടിൽ അത് ഒക്കെ നിങ്ങൾ മേടിക്കേണ്ടി വരും ബാക്കി ബുക്സും കാര്യങ്ങളും ആ ബുക്കും യൂണിഫോം ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രശ്നമൊന്നുമില്ല പിന്നെ ക്ലാസ് ടൈം എൽ കെ ജി പഠിക്കുന്ന ആൾക്ക് വന്നിട്ട് രാവിലെ ഒൻപതെ ടു പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആൾക്ക് വീട്ടിൽ പോകാം ഓ നിങ്ങൾ നിങ്ങൾ കൊണ്ട് പോണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും എൽ കെ ജി യു കെ ജികാർക്ക് ബസ് ഇവിടെ നിന്ന് വിടുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ പോകാം മറ്റുള്ളവർക്ക് രാവിലെ ഒൻപത് മണി തൊട്ട് മൂന്നര വരെയാണ് ക്ലാസ് റെഗുലർ ക്ലാസ് ആണ് ആണ് പിന്നെ ലീവ് എടുക്കുകയാണെങ്കിൽ ക്ലാസ് ടീച്ചറെ മുൻപു തന്നെ വിളിച്ച് പറയണം ഇല്ല കുഴപ്പമില്ല ക്ലാസ് തുടങ്ങണേനു മുമ്പ് അറിയിച്ചാലും മതി ഇപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ ഇനി ഇപ്പോൾ എന്തായാലും ഒരു ഒരാഴ്ചയും കൂടി ആണ് നമ്മൾ അഡ്മിഷൻ്റെ ടൈം വെച്ചിരിക്കുന്നത് കാരണം ഇനി ഇപ്പോൾ ആകെ രണ്ടാഴ്ചയേ ഉള്ളൂ നമുക്ക് ക്ലാസ് തുടങ്ങാൻ അപ്പോൾ ഒരാഴ്ചയ്ക്ക് അതായത് ആ ലാസ്റ്റ് വീക്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുക്സും കാര്യങ്ങൾ ഒക്കെ കിട്ടാനും പിന്നെ അതുപോലെ ഈ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ അത് ഒക്കെ പ്രശ്നം ആകും അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഒരാഴ്ച്ചയും കൂടി ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ അഡ്മിഷൻ ആ അത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല വരുന്ന സമയത്ത് മറ്റേ കുട്ടികളെയും കൊണ്ട് വരണം പിന്നെ ആധാർ കാർഡ് അതിൻ്റെ ഒക്കെ പ്രൂഫ് എന്താ പറഞ്ഞാൽ ആ പ്രൂഫ് ഒക്കെ ഒന്ന് അതിൻ്റെ ഒക്കെ ഒരു കോപ്പി എടുത്തിട്ട് വന്നാൽ ഉപകാരമായി അപ്പോൾ നിങ്ങൾക്ക് പിന്നെ രണ്ടാമത് വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നെ കുട്ടികളുടേൽ കൊടുത്ത് വിടേണ്ടി വരും ഇങ്ങനെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ട് അടുത്തു തന്നെയല്ലേ വീട്

ആ ആ ഓക്കെ നമ്മളുടെ സ്കൂളിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും മാറ്റം വെരുത്തണമെന്ന് ഒക്കെ ആരെങ്കിലും പുറത്ത് പറഞ്ഞാൽ കാർമൽ സ്കൂൾ അങ്ങനെ ആണ് ഇങ്ങനെ ആണ് എന്തെങ്കിലും അങ്ങനെ അഭിപ്രായം ഇത് ആ അതെ ആ ആ ഓക്കെ അപ്പോൾ വരുമ്പോൾ ഒന്ന് ആ ഇപ്പോൾ എന്നെ കാണണമെന്ന് നിർബന്ധം ഇല്ല അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ച് കഴിഞകഞ്ഞാൽ നമ്പർ കിട്ടും ഇല്ലെങ്കിൽ ഓഫീസ് നമ്പർ ഉണ്ട് അത് വേടിച്ചോളൂ അതുപോലെ പോകുന്ന സമയത്ത് ഇനി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ ക്ലാസ് ടീച്ചറുടെ നമ്പർ കിട്ടും അവരെ വിളിച്ചിട്ട് ഒന്ന് മുൻകൂട്ടി അത് പറഞ്ഞോള്ളൂ രണ്ടാളുടെയും പേരും ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ രണ്ട് ആളുടെ ക്ലാസ് ടീച്ചറുടെ നമ്പറും മേടിക്കുക പിന്നെ ഈ ലീവ് അവരെ മുൻകൂട്ടി വിളിച്ച് പറയണം നമ്മൾ ഇപ്പോൾ മുൻകൂട്ടി എടുക്കാൻ പറ്റുന്ന ലീവ് ആണെങ്കിൽ വിളിച്ച് പറയണം അതുപോലെ ഇപ്പോൾ പനി അസുഖങ്ങൾ ആണെങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷം അവരെ വിളിച്ച് പറയുക എന്താണ് ഇന്ന കാരണം കൊണ്ട് ആണ് വരാൻ പറ്റാത്തത് ഉള്ള കാര്യങ്ങളൊക്കെ അഥവാ ഇപ്പോൾ നേരത്തെ കൂട്ടി നമുക്ക് വല്ല ഈ ട്രിപ്പ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകൾ പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞാൽ ഉപകാരം ആയി പിന്നെ നമുക്ക് മാസത്തിൽ കാഷ്വൽ ലീവ് നാല് എണ്ണം കൊടുക്കുന്നുണ്ട് അതിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും അറ്റൻഡൻസിൻ്റെ പ്രശ്നം വരും ആ അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം മെഡിക്കൽ ലീവ് ആണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം കേട്ടോ ഡോക്ടർമാർ ഏതെങ്കിലും കാണിക്കുന്ന സമയത്തെ അത് ഒരു ദിവസം ഒക്കെ ആണേ കുഴപ്പം ഇല്ല രണ്ട് ദിവസത്തിൽ കൂടുതൽ ആണെന്നു പറഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ നമുക്ക് ലീവ് തരാൻ പറ്റുകയുള്ളൂ ഓക്കെ വേറെ എന്തെങ്കിലും അറിയാൻ ഉണ്ടോ ആ ആ ഓക്കെ ഓക്കെ ശരി മേഡം ശരി തേങ്ക് യു